ആ ചില സാധാരണ കോഴിത്തീറ്റകൾ എന്നു പറയുമ്പോഴത്തേക്ക് ധാന്യം സോയാബീൻ അല്ലെങ്കിൽ അരി ഗോതമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ നമ്മൾ കൂടുതലും കോഴികൾക്ക് തീറ്റയായിട്ട് നൽകുന്നത് ഈ ധാന്യങ്ങൾ നൽകുമ്പോഴത്തേക്ക് കോഴികൾ മുട്ട ഇടുന്നതിന് അല്ലെങ്കിൽ കുഞ്ഞു കോഴികളാണെങ്കിൽ അതിങ്ങൾക്ക് പെട്ടെന്ന് വളരുന്നതിന് ഉള്ള ഒരു ഇതാണ് കൊടുക്കുന്നത് അത് പിന്നീട് വലിയ കോഴികളൊക്കെ ആണെങ്കിൽ കോഴിക്ക് അരി അല്ലെങ്കിൽ ഗോതമ്പൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് മുട്ടയിടുന്നതിന് ഉള്ള ഇത് കൊടുത്ത് കിട്ടുന്നു അതിൽനിന്ന് കർഷകർക്ക് കോഴിത്തീറ്റകൾ കൊടുത്ത് കോഴികളെ ഇതാക്കുമ്പോഴത്തേക്ക് അത് അതിൽ നിന്നൊക്കെ മുട്ട കൊടുത്ത് അവർക്ക് ആ ഒരു കർഷക കോഴികൾ കോഴിവളർത്തൽ അവർക്ക് വളരെ എന്നാ എന്താണ് സാമ്പത്തികമായിട്ടുള്ള ഒരു ഇതിന് മുതൽക്കൂട്ടായിട്ട് സാധിക്കുന്നുണ്ട് ഗോതമ്പാണെങ്കിലും കോഴിക്ക് വളരെ അത്യുത്തമമായ ഒരു തീറ്റയാണ് മറ്റു ധാന്യങ്ങളോ അല്ലെങ്കിൽ മറ്റു കോഴിത്തീറ്റകളൊക്കെ നമുക്ക് കടകളിൽനിന്ന് ധാരാളം ലഭിക്കുമെങ്കിലും ഏറ്റവും അത്ത്യ ഉത്തമമായ ധാന്യം അല്ലെങ്കിൽ അരി അല്ലെങ്കിൽ സോയാബീൻ അങ്ങനുള്ള ഭക്ഷണങ്ങൾ അങ്ങനെയുള്ള തീറ്റകൾ നമ്മൾ കോഴികൾക്ക് കൊടുക്കുമ്പം അതിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ അതിങ്ങൾക്ക് ദഹിക്കുന്നതിനും അല്ലെങ്കിൽ കോഴികൾക്ക് വളർച്ച കൂട്ടുന്നതിനും ഉല്പാദനശേഷിയും എല്ലാം വെപ്പിക്കുന്നതിന് ആ കഴിയുന്നു നല്ല മുട്ടകളൊക്കെ ലഭിക്കാൻ കർഷകർക്ക് ഏറ്റവും അത്യുത്തമമായ ഒരു മാർഗ്ഗം ആണ് നല്ല കോഴിത്തീറ്റകൾ ഉപയോഗിക്കുന്നത് വഴി ഉണ്ടാകുന്നത്